പ്രാർഥനകളും ആരാധനകളൊക്കെ ഒത്തിരി നല്ലതാണ് പ്രാർഥിക്കുന്നതും വ്യക്തികളിൽ കൂടുതൽ ആത്മാർഥമായിട്ടുള്ള പ്രാർഥനയായിരിക്കണം നമ്മൾക്ക് നമ്മളെ സൃഷ്ടിച്ച ദൈവത്തിന് നമ്മൾ നന്ദി പറയുക ഒരു ദിവസമാണെങ്കിൽ ആ ഒരു ദിവസം ദൈവം നന്നുങ്ങളെ നയിച്ചതിന് നമ്മളെ അപട അപകടങ്ങളിൽ നിന്ന് കാത്തു സംരക്ഷിച്ചതിന് ദൈവം നമ്മളിലേക്ക് ചൊരിഞ്ഞ നന്മകളെ ഓർത്ത് നമ്മൾ സൃഷ്ടി ദാതാവായ ദൈവത്തിനെ നമ്മൾ സ്തുതിക്കുകയാണ് ആ ഒരു ദിവസത്തിൻ്റെ അൽപ്പ നിമിഷം ട്വൻ്റി ഫോർ അവേഴ്സ് ഉണ്ട് അതിൽ ഒരു ഒരു നിമിഷം പോലും നമ്മൾ ദൈവത്തിനെ ഓർത്താൽ അത് അത്രയും സമാധാനവും സന്തോഷം നമുക്ക് നൽകും കാരണം ദൈവമാണ് ഈ പ്രപഞ്ചം സൃഷ്ടിച്ചത് നമ്മൾക്ക് ജീവൻ നൽകിയത് ദൈവമാണ് ഇന്ന് ഞാൻ ഈ ഈ അവസ്ഥയിലായിരിക്കുന്നത് പ്രധാന കാരണം ദൈവമാണ് കാരണം മനുഷ്യൻ ബലഹീനനാണ് അപ്പം ദൈവമാണ് ഈ പ്രാർത്ഥനയും ആരാധനയോടെയാണ് നമ്മൾ ഒരു ശക്തിയുള്ള മനുഷ്യനാക്കി തീർക്കുന്നത് അതായത് വിശുദ്ധരാക്കി തീർക്കുന്നത് ആരാധനകൾ നമ്മുടെ ദൈവത്തിനെ ആരാധിക്കണം ദൈവം നമുക്ക് ജന്മം നൽകിയതാണ് അല്ലെങ്കിൽ പണ്ടേ ദൈവം നമ്മൾ തെരെഞ്ഞെടുത്തിട്ടില്ലായിരുന്നെങ്കിൽ പണ്ടേ നമ്മൾ ഏതെങ്കിലും രീതിയിൽ നിന്ന് ഈ ഭൂമിയിൽ നിന്നും നമ്മൾ മരിച്ച് പോവുകയോ അല്ലെങ്കിൽ അമ്മയുടെ ഉദരത്തിൽ നിന്ന് നമ്മൾ നമ്മളെ നമ്മുടെ ഭ്രൂണത്തെ അവസാനം അവസാനിപ്പിക്കാനുള്ള പല പ്രക്രിയകളും ഇന്ന് ലോകത്തുണ്ട് അതൊന്നും ദൈവം നമ്മളെ തെരെഞ്ഞെടുത്തത് കൊണ്ടാണ് ഇന്ന് ഞാനും ജീവിക്കുന്നത് അതുകൊണ്ട് എൻ്റെ ദൈവമായ കർത്താവിനെ ഞാൻ എൻ്റെ ജീവിതത്തിലൂടെ എൻ്റെ ശരീരത്തിലൂടെ ഞാൻ ആരാധിക്കുന്നു അതിന് നമ്മുടെ മനസും ഹൃദയവും ശരീരവും നിർമ്മലമായാൽ മാത്രമാണ് നമ്മൾക്ക് ദൈവത്തെ ആരാധിക്കാൻ ആത്മാർഥമായിട്ട് ആരാധിക്കുവാനും നമ്മൾക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കുവാനും കഴിയുകയുള്ളു